ഹലോ ഹലോ ഞാന് സുമിയാണ് നമ്മൾ ഒരുമിച്ചു പഠിച്ചതാണ് ഓര്മയുണ്ടോ എന്നെ ആ ഒത്തിരിനാളായതുകൊണ്ടായിരിക്കും മനസ്സിലാകാത്തത്

മറന്നില്ല മറന്നില്ല നമുക്കേ ഞാനിപ്പോള് വിളിച്ചതെന്നാറിയാമോ നമ്മള്ക്കൊരു ഒന്ന് എല്ലാവർക്കുംകൂടെ ഒരുമിച്ച് കൂടണമല്ലോ നമ്മടെ ബാച്ച് നമ്മള് പഠിച്ചവർക്ക് എല്ലാവര്ക്കുംകൂടെ ഒരുമിച്ചുകൂടി ഒരു ഗെറ്റുഗെതര് വച്ചാലോ ഡിസംബറിലേ ആ ഈ അവധിയൊക്കെ ആയതുകൊണ്ടേ പിള്ളോരൊക്കെ വീട്ടിലുണ്ട് എല്ലാവരും ഉണ്ട് നല്ല സന്തോഷം അപ്പോള് നമുക്ക് എല്ലാവരും നമ്മള് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ കൂടിക്കോണ്ടിരുന്നത് ഇനി ഇപ്പോള് നമുക്ക് ഫാമിലിയുടെ ഒരു ഒന്നു കുടിയാലോ ഏ അതിനെക്കുറിച്ചുള്ള ഓക്കെ ആ ഇല്ല ഇല്ല ആ അതെ നമ്മള്ക്ക് കൂടി വെറുതേ കൂടിയാല്പ്പോരാ ഇതു നമുക്ക് ഗ്രാൻഡാക്കണം നമ്മുടെ മക്കളൊക്കെ ഇതു കണ്ടുപഠിക്കേണ്ടേ നമ്മളുടെ നമ്മളുടെ സ്നേഹവും സഹകരണവുമൊക്കെ അതുകൊണ്ട് നമ്മള്ക്കൊരു ലിസ്റ്റ് കൊടുക്കണം നമ്മൾക്ക് വരുന്നവര്ക്ക് ഡിസംബർ മാസം കൂടെയല്ലേ അവർക്ക് നമുക്കൊരു ഗിഫറ്റ് കൊടുക്കണം അപ്പോള് നമുക്കതിന് ഒരു ഒന്ന് ആലോചിച്ച് എന്താണു കൊടുക്കേണ്ടതെന്ന് ഓർമയിൽ നിൽക്കുന്ന എന്തെങ്കിലുമായിരിക്കണം നമ്മള് കൊടുക്കേണ്ടത് അപ്പോള് അതിനുള്ള ഒരു സംരംഭം കൂടെ നമ്മള് കരുതി വേണം അപ്പോള് നമുക്ക് എന്നത്തേക്കിനു കൂടാം ഒരു ഇരുപതിനകത്തു വേണം ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോള് ക്രിസ്മസ് അല്ലേ അതിനുമുമ്പ് നമുക്കൊന്ന് അടിച്ചുപൊളിക്കാം

ആ അപ്പോള് ഒരു ആ അപ്പോള് ഡേറ്റ് കൂടിയൊന്നു പറയൂ ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കെ ആ എന്നാലും മതി ക്രിസ്മസ് കഴിഞ്ഞിട്ടാണേലും മതി ആ ആ അപ്പോള് വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരുമൊക്കെ ആ ടൂര് ആ ടൂര് പോകണം പിള്ളാരുടെയൊക്കെ ആ ഓക്കെ ഓക്കെ നമുക്കത് കൂടാം എല്ലാവര്ക്കും കൂടെ ആലോചിച്ചിട്ടേ എല്ലാവരെയുംകൂട്ടി നമുക്ക് ആലോചിക്കാം പിന്നെ

ആ ആ ആ ആ ആ ആ ആ അയ്യോ നമുക്ക് അത്യാവശ്യം അവരെ പോയിക്കാണണം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കില് ചെയ്യണം തീര്ച്ചയായിട്ടും ചെയ്യാം ഓക്കെ ഓക്കെ ടീച്ചറിന്റെ വീടറിയാമോ മറിയാമ്മ ടീച്ചറിൻ്റെ അവരിപ്പോഴെവിടെയാണു താമസിക്കുന്നതെന്ന് ആ ആ ആ ടീച്ചർ ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നെടുത്തുവയ്ക്കണേ ആ ശരി ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുത്തുവയ്ക്കണം കേട്ടോ കാരണം നമുക്ക് പിന്നെ ആ ആ നമ്മുടെ വാട്സ്പ്പ് ഗ്രൂപ്പിലേ ക്ലാസ്സിലെല്ലാവരെയും തന്നെ ആഡെയ്തിട്ടുണ്ടോ ആ അപ്പോള് ഇല്ലാത്തവരെക്കൂടെി ആഡ് ചെയ്യണം നമുക്ക് എന്നാലേ നമ്മുടെ ഗ്രൂപ്പ് കൂടുതലൊരു ബലമുണ്ടാവുകയുള്ളൂ നമ്മുടെ ആ ഇയറിലേ ആ നമ്മള്ക്ക് ഒന്നും വേണ്ട സ്കൂളില് പോയിട്ട് ആ ഇയറിലെ രജിസ്ട്രേഷൻ അതിൻ്റെ രജിസ്റ്റർ നോക്കിയാല് മതി അതില്നിന്നു നമുക്കതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാം എന്നിട്ട് നമ വിളിക്കുകയും ചെയ്യാമല്ലോ ആ പിന്നെ നമ്മള്ക്ക് ഗെറ്റുഗെതറിന് ഇപ്പോള് കുറേ പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം ഡാൻസ് കോമഡി പ്രോഗ്രാമോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ആ സുധ നന്നായിട്ട് പാടുമായിരുന്നു ഓര്മയുണ്ടോ സുധ ടീച്ചറിനെ ആ ടീച്ചറിനെക്കൊണ്ടു നമുക്കൊരു പാട്ടു പാടിക്കണം കെട്ടോ ആ വേറെ എന്നാ ഉണ്ട് വി ശേഷം വീട്ടിലെല്ലാവർക്കും സുഖമാണോ ആ മകന് മകളൊക്കെ വന്നിട്ട് പോയോ ആ വരുന്നല്ലേ ആ ഹ ആ ഹാ ആ അപ്പോള് എല്ലാവരെയും വിളിച്ചിട്ടേ നമുക്ക് പിന്നീടെല്ലാം ബാക്കി സമയം പോലെ പ്ലാൻ ചെയ്യാം ഏ ഓക്കെ എന്നാല് വെച്ചേക്കട്ടെ ഓക്കെ ഓക്കെ